കോട്ടയം ജില്ലയെപ്പറ്റി പറയുവാണെങ്കിൽ അക്ഷര നഗരി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ കോട്ടയം ഡി കോട്ടയം ഡിസ്ട്രിക്ട് മഹാത്മാ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് തന്നെ കോട്ടയത്താണ് കോട്ടയം ജില്ലയിലാണ് ഒട്ട് മിക്ക കോളേജുകളും ഈ ഒട്ട് മിക്ക കോളേജുകളും പ്രവർത്തിക്കുന്നത് തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് സി എം എസ് കോളേജ് കേരളത്തിലെ തന്നെ ആദ്യത്തെ കോളേജാണ് ഓ വാ പിന്നെ ഗവണ്മെൻറ്റ് പോളിടെക്നിക് നാട്ടകം അവിടെ തൊഴിലധിഷ്ഠിത കോഴ്സാണ് നൂറ് കണക്കിനാൾക്കാർ അവിടുന്ന് പഠിച്ചിറങ്ങി പല പല തസ്തികകളിൽ ജോലി ചെയ്യുന്നു നൂറ് കണക്കിനാൾക്കാർ കോട്ടയം ജില്ലയിൽ പിന്നെ കോട്ടയം ജില്ലയിലെ കോളേജെന്ന് പറയുവാണെങ്കിൽ സി എം എസ് കോളേജ് കോട്ടയം ബസേലിയസ് കോളേജ് കോട്ടയം അസ്സംഷൻ കോളേജ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി പിന്നെ ചങ്ങനാശ്ശേരി തന്നെ മീഡിയ വിടിജെ കുരുശുംമൂട്ടിൽ ഭയങ്കര നല്ല ഫേമസ് കോളേജാണ് പിന്നെ എൻജിനീയറിങ് കോളേജിനെപ്പറ്റി പറയുവാണെങ്കിൽ അമൽ ജ്യോതി കാഞ്ഞിരപ്പള്ളിലുണ്ട് ആർ ഐ ടി പാമ്പാടി സെൻറ്റ് ജോസഫ് പാലാ സെൻറ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ്സ് പത്താംമുട്ടം ഇതൊക്കെ ഫേമസ് കോളേജുകളാണ് പിന്നെ സ്കൂളുകളെപ്പറ്റി പറയുവാണെങ്കിൽ എസ് ഐ ടി ചങ്ങനാശ്ശേരി എസ് ബി ഹൈ സ്കൂൾ ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് ഗിരിദീപം ബഥനി കോട്ടയം എൻ എസ് എസ് സ്കൂൾ ചങ്ങനാശ്ശേരി ലൂർദ് പബ്ളിക് സ്കൂൾ ഗവമെൻറ്റ് സ്കൂൾ ചങ്ങനാശ്ശേരി ഗവമെൻറ്റ് സ്കൂ സ്കൂളുകളിലാണെ ഇപ്പം ഫീസ് ഒന്നും കൊടുക്കണ്ട മാനേജ്മെൻറ്റ് സ്കൂളിലൊക്കെ അവർ ഒരു ഒരു ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഫീസ് നിശ്ചയിച്ച രീതിയിൽ ഫീസ് കൊടുക്കുന്നു നിശ്ചയിച്ച തുക അവർ ഈടാക്കും ഈടാക്കും